ഈ മേഖലയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജിയോ തന്നെയാണ് പിന്നെയും ആൾക്കാര് ഉപയോഗിക്കുന്നത് എയർടെല് അതിനുശേഷം ഐഡിയ പിന്നെയാണ് ബി എസ് എൻ എൽ വരുന്നത് ഇപ്പോൾ ജിയോ ഏറ്റവും കൂടുതൽ ആൾക്കാര് യൂസ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റർനെറ്റ് സ്പീഡ് അതിൻ്റെ ഓഫറുകള് ഒരുപാട് ഓഫറുകള് കൊടുത്ത് ജിയോ ഇറങ്ങിയത് അതിൻറ്റൊപ്പം പിന്നീട് എയർടെല് വന്നു എയർടെൽ വന്നു ജിയോയ്ക്ക് മുൻപ്പ് എയർടെൽ ഉണ്ട് പിന്നീട് എയർടെല് എയർടെലിൻറ്റെയും ഇത് തന്നെയാണ് ഇൻറ്റർനെറ്റ് സ്പീഡ് ഭയങ്കര ഹെവിയാണ് ഹെവിയായിട്ട് ഇൻറ്റർനെറ്റ് കൊടുക്കുന്നുണ്ട് അതേപോലെ ഏത് മുക്കിലും മൂലയിലും ഈ ജിയോയ്ക്ക് ആണെങ്കിലും എയർടെല്ലിനാണെങ്കിലും അത്യാവിശ്യം റേഞ്ച് കിട്ടും പിന്നേ ജിയോനെക്കാട്ടും കുറച്ചും കൂടെ റേഞ്ച് കിട്ടുന്ന ഒരു സിം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എയർടെലാണ് എന്നാൽ കുന്നിൻ്റെ മണ്ടേലാണെങ്കിലും ഏത് കുന്നിൻ്റെ മണ്ടേൽ കയറിയാലും അത്യാവിശ്യം റേഞ്ച് എയർടെല്ലിനുണ്ടാവും പക്ഷേ ചിലപ്പോൾ ജിയോയ്ക്ക് കിട്ടാനില്ല ചില പർട്ടിക്കുലർ ലൊക്കേഷനുകളിൽ ജിയോയ്ക്ക് ഇല്ല എന്നാൽ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ലൊക്കേഷനുകളിലും ജിയോയ്ക്കും എയർടെല്ലിനും നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് ബാക്കി സിമ്മുകൾക്ക് സിമ്മുകളെ അപേക്ഷിച്ചിട്ട് പിന്നേ ഈ ഭാഗത്ത് ടെലിഫോൺ സൗകര്യം നൽക്കുന്നത് ബി എസ് എൻ എൽ ആണ് ബിഎസ്എന്നലിൻറെയാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ലൈൻ ഫോണുകള് പ്രവർത്തിക്കുന്നത്